വിദ്യാഭ്യാസ ലോണിനെക്കുറിച്ച് അറിയാം വിദ്യാഭ്യാസ ലോണെടുത്ത ആരെക്കുറിച്ചും അറിവില്ല വിദ്യാഭ്യാസ ലോണെന്നു പറയുന്നത് വിദ്യാഭ്യാസത്തിനോ ഉന്നത വിദ്യാഭ്യാസ ചിലവുകൾക്കോ വേണ്ടി ബാങ്കിൽ നിന്നോ കടമെടുക്കുന്നതാണ് ഒരു അക്കാദമിക്ക് ബിരുദം നേടുന്നതിന് അംഗീകൃത കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ചേരുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ വായ്പകൾ എടുക്കുന്നത് സർക്കാരിൽ നിന്നോ സ്വകാര്യ മേഖലയിൽ നിന്നോ ലോണുകൾ എടുക്കാവുന്നതാണ് കുറഞ്ഞ പലിശ നിരക്കാണ് ഇതിനുള്ളത്